ഇന്ന് ഇന്ത്യ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന അക്രമങ്ങളും അനീതികളും അതുപോലെ തന്നെ മറ്റു ചില പ്രശ്നങ്ങളും അതില് എടുത്തു പറയേണ്ടത് ആയിട്ട് ഉള്ളത് സ്ത്രീസമത്വം ആണ് സ്ത്രീയും പുരുഷനും തുല്യത ഉള്ള ഈ കാലഘട്ടത്ത് ഇന്ത്യയിൽ സ്ത്രീസമത്വം വെറും വാക്കുകളിൽ മാത്രം ആണ് ഒതുങ്ങി നിൽക്കുന്നത് ഉദാഹരണം ആയിട്ട് ജനാധിപത്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും മുപ്പത്തിമൂന്നു ശതമാനവും നാൽപ്പതു ശതമാനവും ഇത്രെയൊക്കെ ആനുപാതികമായിട്ടുള്ള പങ്കാളിത്തം ഉള്ളു അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാരിനെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് വേതനം വളരെ കുറവാണ് പുരുഷന് അഞ്ഞൂറു രൂപ ലഭിക്കുന്നെങ്കിൽ സ്ത്രീകൾക്ക് അതേ ജോലിക്ക് ലഭിക്കുന്നത് മുന്നൂറു രൂപയോ ഇരുന്നൂറു രൂപയോ മാത്രമാണ് ഇത് സ്ത്രീകൾക്ക് നേരിടുന്ന വലിയൊരു വെല്ലുവിളി ആണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും സ്ത്രീ സുരക്ഷയിലും ഇന്ന് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വലിയൊരു വെല്ലുവിളി ആണ് നേരിടേണ്ടി വരുന്നത് ശൈശവ വിവാഹം പോലുള്ള പല അനീതികളും അക്രമണങ്ങളും ഇന്ന് സ്ത്രീകൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് തുല്യ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നതും സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ വെല്ലുവിളി ആണ്